കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാങ്കേതിക വിദ്യ വളരെയധികം മാറ്റങ്ങൾ ചെലുത്തിയ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കൊറോണ വന്ന കാലഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യ ഒരുപാട് പഠനത്തിനായാലും മറ്റു മീറ്റിങ്ങൽക്ക് മീറ്റിങ്ങുകൾക്ക് ഒരുപാട് നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് എന്തിരുന്നാലും നമുക്ക് ഇന്നത്തെ പഠന വ്യവസ്ഥയെ മാറ്റി മറിക്കുന്ന ഒന്നു തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും അതേപോലെ അമിതമായി അവർ ഇതിലേക്ക് ഇൻവോൾവ്ടായി ഒരുപാട് നേരം സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ കണ്ടു വരുന്ന ഒന്നാണ് ഏത് സമയവും ഇൻറ്റർനെറ്റിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും തോണ്ടി തോണ്ടിയിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്തു കൊണ്ടും നമ്മുടെ പണ്ടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നു വെച്ചാൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ക്ലാസ് മുറികളിലുള്ള ഇടപഴകലിനെ വരെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു ഫോണിലുള്ള അഡിക്ഷനും അതേപോലെ കമ്പ്യൂട്ടറുകളിലും ഇൻറർനെറ്റുകളിലുമടക്കി വാണ്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർഥികളുടെ ഒരു മനോഭാവം നമ്മുടെ ക്ലാസ്മുറികളിലെ സന്തോഷത്തെവരെ മാറ്റി മറിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ക്ലാസ് മുറികൾ പണ്ടത്തെ ക്ലാസ് മുറികളെ കുറിച്ച് ആ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പുളകം കൊള്ളുന്ന ഒന്നു തന്നെയാണ് ഇപ്പോഴത്തെ ക്ലാസ് മുറികളും എല്ലാം നിശബ്ദമായിരിക്കുന്നതിന് ഒറ്റ കാരണം മാത്രമേയുള്ളൂ നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് അപ്പം നമുക്കൊരുപാട് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഒരുപാട് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അതേപോലെ നമുക്ക് റിസേർച്ചിനുള്ള കാര്യങ്ങളും എത്തിച്ചു തരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് നല്ല രീതിക്കും അതേപോലെ മോശമായ രീതിക്കും നമുക്ക് ഇൻറർനെറ്റും അതേപോലെ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ വിദ്യാർത്ഥികൾ ആർജിക്കേണ്ടത് എങ്ങനെയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിലനിൽപ്പ് നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള രീതിക്ക് എങ്ങനെയൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ എല്ലാ സമയോം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്